എൻ്റെ വീട്ടിൽ പുസ്തകശാല ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രാമത്തിനും പുസ്തകശാലയുണ്ട് പുസ്തകശാല എന്നു പറഞ്ഞാൽ വായിക്കാൻ ഏറ്റവും സുഗമമായ എളുപ്പമായ ഒരു സ്ഥലമാണ് അതുകൊണ്ടുതന്നെ പുസ്തകശാലയ്ക്ക് ഒരുപാട് ഉപകാരങ്ങളുമുണ്ട് വീട്ടിലെ പുസ്തകശാലകൾ വളരെ അത്യാവശ്യമായ അതല്ലെങ്കിൽ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിലെ വീട്ടിലെ പുസ്തകശാലകളൊക്കെ കൃത്യമായ വ്യക്തമായ ആ ഒരു രീതിയിലാണു പോയിട്ടുണ്ടാവുക അതുകൊണ്ടുതന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിശാലമായി വായിക്കാനാഗ്രഹമുള്ള ധാരാളമായി ചിന്തിക്കാനാഗ്രഹമുള്ള നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പുസ്തകശാലകൾ വളരെ അത്യാവശ്യം അതുകൊണ്ടുതന്നെ ഓരോ നാട്ടിലും പുസ്തകശാലകൾ വളരെ കൂടുതലായി നമുക്കു കാണാൻ കഴിയാം എൻ്റെ ഗ്രാമത്തിലുള്ള പുസ്തകശാലകളിൽ ധാരാളം പതിനായിരത്തില്ക്കൂടുതൽ പരം പുസ്തകങ്ങളുണ്ട് അതിൽ ഖുര്ആനാദി പോലുള്ള ഗ്രന്ഥങ്ങളിലൊന്നും ഒരുവിധം സംഭവിച്ചിട്ട് സംഭവിച്ചിട്ടില്ല പുസ്തകശാലകളെ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ ഇപ്പോള് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് വായനയിലൂടെയാണ് വായനയിലൂടെ പുതിയ അറിവുകൾ പുതിയ ചിന്തകൾ പുതിയ മാറ്റങ്ങളൊക്കെ അവനു നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ടു തന്നെ ധാരാളമായി വായിക്കുന്നവരാണ് നമ്മൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പുസ്തകം നോവൽ അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ബേ്സ്ഡ് പുസ്തകങ്ങളാണ് അതിൽനിന്ന് കൂടുതലായി ഇൻഫർമേഷൻ ലഭിക്കും നോവൽ ഇഷ്ടപ്പെടുവാനുള്ള കാരണം എന്തെന്നു വച്ചാല് നോവലിലൂടെ നമുക്കു കുറേ കഥകളും കണ്ടിന്യൂസായിട്ടുള്ള നിരന്തരമായ കഥകളുടെ ഒരു ഖണ്ഡിക തന്നെ തുടർച്ച തന്നെ നോവലിലൂടെയൊക്കെ കാണാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരുപാടു പുസ്തകങ്ങൾ കിട്ടണമെങ്കിൽ പൊതു ലൈബ്രറിയിലോ മറ്റോ നാം കയറേണ്ടതുണ്ട് അവിടെ നിന്നും വളരെ ഉപകാരപ്രദമായ കൂടുതൽ ധാരാളം പുസ്തകങ്ങൾ നമുക്കു ലഭിക്കും അത്തരം പുസ്തകങ്ങളൊന്നും വീട്ടിലെ വീട്ടിലെ അറിവുശാലയിൽ നമുക്ക് ലഭിക്കാന് പുസ്തകശാലയിൽ നമുക്ക് ലഭിക്കുകയില്ല എന്നതു മറ്റൊരു വാസ്തവമായ കാര്യമാണ്